എടാ ഞാനെൻ്റെ വിവാഹ സർട്ടിഫിക്കറ്റില്ലെ അത് ഡിജ് ഡിജിറ്റലായിട്ട് സൂക്ഷിക്കണം എന്ന് ആഗ്രഹിക്കുന്നു കാരണം ഇപ്പോഴത്തെ രീതിയിൽ നമുക്ക് എപ്പളും നമ്മളൊരു പേപ്പറ് പേപ്പറല്ലേ അതിപ്പം നമ്മടേൽ എത്രത്തോളം ഭദ്രമായിട്ടിരിക്കും അതിനെ കാട്ടിൽ നല്ലതത് ഡിജിറ്റലായിട്ട് സൂക്ഷിക്കുന്നതല്ലേ അപ്പോൾ നീ പറഞ്ഞ പോലെയീ ഡിജീലോക്കറ് നല്ലൊരു സംവിധാനമല്ലേ അതിനെക്കുറിച്ച് എനിക്ക് ആദ്യം കൂടുതലായിട്ടൊന്നും അറിയത്തില്ല അപ്പോൾ അതിനെക്കുറിച്ച് എങ്ങനാണ് എന്താണ് അതിന് പ്രോസ എങ്ങനെ അത് ചെയ്യാം നമ്മളെ ഈ ഈ ഡോക്യുമെൻറ്റ്സൊക്കെ അതിൽ സെയ്ഫ് ആയിരിക്കോ എന്നൊക്കെയുള്ള കാര്യങ്ങളെനിക്കൊന്ന് പറഞ്ഞ് തെരോ ഈ ഫോണിൽ നമ്മൾ ഇത് എടുക്കില്ലെ ഇതെങ്ങനാണ് ഇതിൻ്റെ പ്രോസസ് അതായത് എന്തൊക്കെ ഇത് ചെയ്യണം നമ്മൾ ഫോണിലെങ്ങനാ ഈ ഡിജീലോക്കറിനെ സംവിധാനം ഉപയോഗപ്പെടുത്തുന്നതൊക്കെ എനിക്കൊന്ന് പറഞ്ഞ് തരാവോ എനിക്കതിനെ കുറിച്ച് കൂടുതൽ കാര്യമൊന്നും അറിയത്തില്ല അതുകൊണ്ടാ അപ്പോൾ നീ പറഞ്ഞെന്നാൽ അത്ര ഉപകാരമായിരിക്കും അപ്പോൾ എനിക്കത് ഭാവിയിലേക്ക് ഉപകാരപ്രദം പ്രദാവോലോ കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യം സാഹചര്യത്തിൽ നമുക്ക് ഇത് എത്രാന്നും പറഞ്ഞാൽ നമ്മൾ അത് കയ്യിൽ സൂക്ഷിക്കുക അപ്പോൾ അത് ഡിജിറ്റലായിട്ടിരുന്നാ അത്രയും നല്ലതാണ് അപ്പോൾ ഈ ഡിജീലോക്കറിനെ കുറിച്ച് നിനക്കറിയാവുന്ന കാര്യങ്ങൾ എന്നിക്കൊന്ന് പറഞ്ഞ്തരണേ